ഡാ നമസ്കരണം ആർവൈ റെസ്റ്റോറൻറ്റ് അല്ലെ ഇടക്ക് ഓപ്പണായി എന്ന് കേട്ടു നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഒ എവിടെ മറ്റേ അൽഫഹാമ് അല്ലെങ്കിൽ മറ്റേ മന്തി ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പാലക്കാടിലെ കാട്ടിലും നല്ല ടെസ്റ്റിലാണ് ഇപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്ന് അറിഞ്ഞു അപ്പോൾ ആ ഡിഷ് അത് ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞാന് പിന്നെ നിങ്ങള് സ്വീറ്റ് ഐറ്റംസായ മറ്റേ ബാദുഷ ആ സാധനമില്ലേ അതും കുറച്ച് വേണം അപ്പോൾ എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് പിന്നെ എനിക്ക് എന്തായാലും ഓർഡർ ഹോം ഡെലിവറി ഉണ്ട് ഉണ്ടോ ആ കാര്യവും അറിയണം പിന്നെ നിങ്ങൾ മറ്റേ സ്വിഗ്ഗിയിൽ ഒക്കെ നോക്കി നിങ്ങടെ റെസ്റ്റോറൻറ്റ് എന്ന് അങ്ങനത്തെ സ്വിഗ്ഗയോ അല്ലെങ്കിൽ എന്താ പറയുക സോമറ്റോയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങടെ കമ്പനിയായിട്ട് ടൈ അപ്പ് ഉണ്ടോ ഈ നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് ഓർഡർ കൊടുത്താൽ വരാൻ പറ്റുന്ന രീതിയില്